ഗ്രാമപ്രദേശങ്ങളിലെ സർക്കാർ ഭരണത്തിലില്ലാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇതിനകത്ത് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ഗ്രാമ പ്രദേശമാണ് എൻ്റെ ഗ്രാമം ഇവിടെ ഭൂസേവനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്തുന്നുണ്ട് നല്ല ഭൂസേവകരാണ് രാഷ്ട്രീയ ചിന്താഗതിയുള്ള രാഷ്ട്രീയ എന്താ ഔന്നിത്യമുള്ള ഒരു ജനതയാണ് എൻ്റെ ഗ്രാമത്തിലുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസേവകരും കൃത്യമായിട്ടുണർന്ന് പ്രവർത്തിക്കുന്നവരാണ് തകർച്ചക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ ജനങ്ങളുടെ ഭാഗത്ത് നിന്നോ ഇല്ല ആരോഗ്യപരമായ അസമത്വങ്ങളൊന്നുമില്ല കൃത്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ആശുപത്രികളും എല്ലാം എൻ്റെ നാട്ടിൽ ഉണ്ട് കുറ്റ കൃത്യങ്ങളും സാമൂഹ്യ അശാന്തിയും എൻ്റെ നാട്ടിലില്ല എന്ന് തന്നെ വേണം പറയാൻ രാഷ്ട്രീയ പാർശ്വവൽക്കരണവും ഇല്ല കാരണം രാഷ്ട്രീയ ചിന്താഗതി പ്രബുദ്ധതയുള്ള വ്യക്തികളാണ് കൂടുതലും ഉള്ളത് എങ്കിൽ തന്നെയും രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷതയോട് കൂടി നിൽക്കുന്ന ആളുകളും ഉണ്ട് അവരുടെയടുത്ത് ഒരു തരത്തിലുള്ള പാർശ്വവൽക്കരണവും നടന്നിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല